നിരവധി തരത്തിൽ ഗതാഗത സമ്പ്രദായങ്ങള് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ ഗതാഗതം സംവിധാനം പറയുമ്പോൾ നിരവധി നമ്മൾ വാഹനങ്ങളില്ക്കൂടി യാത്ര വള്ളത്തില്ക്കൂടി യാത്ര ചെയ്യുന്നവരുണ്ട് കരയില് പിന്നെ കരയില്ക്കൂടി യാത്ര ചെയ്യുന്നവർ വെള്ളത്തിൽക്കൂറ്റി യാത്ര ചെയ്യുന്നവർ ആകാശത്തു കൂടി യാത്ര ചെയ്യുന്നവർ അങ്ങനെ നമ്മൾ വിവിധ തരത്തിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പം പഴയ കാലത്തെവെച്ച് വളരെയധികം ഗതാഗത സംവിധാനം നമ്മുടെ രാജ്യത്ത് കൂടുതലാണ് കൂടുതലായിട്ടാളുകൾ ഇപ്പം വാഹനങ്ങളില്ലാത്താളുകള് വളരെ ചുരുക്കമാണ് മിക്ക വീടുകളിലും ഇപ്പോഴേത് എല്ലാ വീടുകളിലും തന്നെ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഏതെങ്കിലും ഒരു വാഹനങ്ങളില്ലാത്ത വീടുകൾ ചുരുക്കമാണ് പഴയ കാലത്തായക്കെന്നൊരു വീട്ടിലൊരു പണ്ടു കാലത്ത് സൈക്കിളൊക്കെ തന്നെ കാണുന്നത് ഒക്കെ വളരെ വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പം മിക്ക വീടുകളിലും ഇത് ഒന്നും ഇല്ലാത്ത വാഹനത്തിന് ആൾ കൂടുതലായിട്ടും ഇപ്പം സ്വന്തം വാഹനത്തിലാണ് മറ്റ് കാ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് മിക്ക വീടുകളിലും ഉണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മൾ നാട്ടിലേക്കൊക്കെ മറ്റും കോട്ടയം കോഴിക്കോട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കില് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ വാ ബസ്സും ട്രെയിൻ ഒക്കെയാണ് ഉപയോ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പം ആള്ക്കാരുപയോഗിക്കുന്നില്ലെന്നല്ല ഒത്തിരി ആള്ക്കാരുപയോഗിക്കുന്നുണ്ട് എന്നാലും ഇപ്പം അവര്ക്ക് സ്വന്തമായിട്ട് വാഹനമുള്ളവർ കൂടുതലായിട്ട് അവരുടെ വാഹനം ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യാറുള്ളെ പിന്നെ കൂടുതലാളുകളും പൊതു സവാരിക്കുപയോഗിക്കുന്നത് കാറ് പിന്നെ ഈ റ്റൂ വീലേര്സ് ധാരാളം ആള്ക്കാരുപയോഗിക്കാറുണ്ട് പിന്നെ ഈ വിമാനത്തില് യാത്ര ചെയ്യാനായിട്ട് താത്പര്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട് വിമാനയാത്ര നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാന് പറ്റുന്ന ഏറ്റവും വേഗമാര്ഗ്ഗം വിമാനമാണ് അപ്പം ഒത്തിരി ആള്ക്കാർ വിമാനത്തില് യാത്ര ചെയ്യാന് ആഗ്രഹിക്കുന്നവരുണ്ട് വിദേശത്ത് പോകാനായിട്ട് അതുപോലെ നമ്മൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായിട്ടൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ തീവണ്ടി അതുപോലെയുള്ള വാഹനങ്ങള് ട്രെയിന് യാത്ര ചെയ്യാന് ഒത്തിരി പേര് താത്പര്യപ്പെടുന്നു നമുക്ക് ഇപ്പം സേഫാണ് ട്രെയിനിലാണേല് യാത്ര ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഫുഡ് കിട്ടുകയും ടോയ്ലറ്റില് പോകാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് അപ്പം ഒത്തിരിയാളുകൾ ട്രെയിന് യാത്ര ചെയ്യാനായിട്ട് ഒക്കെ ആഗ്രഹം അതുപോലെ നമ്മൾ സ്റ്റേ ചെയ്യാന് നമുക്ക് കിടന്നുറങ്ങാനും ഒക്കെ സൗകര്യങ്ങളുണ്ടപ്പം പിന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് അല്ലാതെ ട്രെയിനിലാകുമ്പോൾ നമുക്ക് യാത്രാച്ചിലവ് കുറവാണ് അതുകൊണ്ട് ട്രെയിന് യാത്ര ചെയ്യുന്ന ഒത്തിരിപ്പേരുണ്ട് അതു പിന്നെ അതുപോലെ ബസ് യാത്ര അപ്പോൾ പ പുതിയ തരത്തിലുള്ള മു ന്യൂ മോഡല് ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ലോ ഫ്ലോര് ബസ്സും അങ്ങനെ പല തരത്തിലുള്ള സ വര്ഷങ്ങൾ നാളുകള് ചെല്ലുമ്പം കഴിയും തോറും പല തരത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെള്ളത്തിൽക്കൂടിയാണെങ്കിൽ നമ്മൾ വെള്ളം ബോട്ടിൽ യാത്ര ചെയ്യുന്നവർ വള്ളത്തില് പോകുന്നവർ ചങ്ങാടത്തില് പോകുന്നവർ അങ്ങനെ നിരവധി കാഴ്ചകളൊക്കെ കാണാം അല്ലെ ഒത്തിരിയാള്ക്ക് പല വഴി പല ഉണ്ട് പിന്നെ യാത്രയില് നമുക്ക് പലവിധ വെല്ലുവിളി നേടാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ തീവണ്ടി യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സേഫാണ് ചില സമയങ്ങളില് ബസ് യാത്ര ചെയ്യുമ്പോള് നമുക്ക് മറ്റുള്ള ആളുകളില് നിന്നൊക്കെ ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതപ്പോഴും നമ്മൾ ഒറ്റക്ക് യാത്രയാകുമ്പോൾ നമ്മളത് വളരെയധികം മുന്കരുതലോടുകൂടി യാത്ര ചെയ്യുക രാത്രിയാത്രയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ബസിൻറ്റകത്താണെങ്കിലും ട്രെയിനിനകത്താണെങ്കിലും നമ്മൾ ധാരാളം വാര്ത്തകളൊക്കെ വായിക്കാറുണ്ട് നമ്മളതിനെ മറ്റു സൗകര്യങ്ങളെല്ലാ ബസ്സിലും ചെയ്യുക എല്ലാ യാത്രയിലും നമ്മള് കരുതുക